ഇവിടുള്ള മത്സ്യ തൊഴിലാളികൾ ഏത് ജാതിയിൽപ്പെട്ടതാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇവര് പല രീതിയിലുള്ള ജാതിയിൽ പെട്ടവരായിരിക്കും പക്ഷെ നമുക്കെല്ലാവരും മനുഷ്യര് തന്നെയാണ് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവരുടെ എല്ലാവരുടെയും ബ്ലഡ് ഒരേ പോലെയാണ് അപ്പോൾ നമ്മള് വേറെ ജാതി ജാതിയിൽപ്പെട്ടവരാണെന്നോ അങ്ങനെ ഒന്നും നമ്മള് നോക്കാറില്ല അപ്പോൾ മത്സ്യ തൊഴിലാളികൾന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പിറപ്പിനെ പോലെയാണ് കൂടുതലായിട്ടും നമ്മള് കാണുന്നത് ഇവിടെയുള്ള ഓരോ ഇപ്പോൾ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ വരെ നമ്മള് ഒരുമിച്ചാണ് ഈദുൽ ഫിത്തറും മറ്റ് കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഒരു ആൾക്കാരുമായിട്ട് ഇടപഴകാനൊക്കെ നല്ല രീതിയില് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം നമ്മള് അധികം എല്ലാ ഉത്സവങ്ങളിലും ആൾക്കാരെ പങ്കെടുപ്പിക്കാറുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ട് എല്ലാവരും ആയിട്ടും നല്ല രീതിയിലുള്ള മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയ രീതിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പം എല്ലാവരും ഒരേ ജാതിയിലുള്ളവരല്ല പ പല ജാതിയിൽ പെട്ടവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയില് നമ്മള് ചെയുന്നതാണ്